ഈ ആധുനിക കാലത്തും പല മതത്തിലും പല അന്ധവിശ്വാസങ്ങളുണ്ട് മറ്റുള്ളവർ തൻ്റെ ശത്രുവിന് വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യുന്നതും പിന്നെ മന്ത്രങ്ങള് ചെയ്ത് തകിട് കുഴിച്ചിട്ടൂന്നും എന്നൊക്കെ പറഞ്ഞു അമ്പലങ്ങളിൽ ചെന്ന് സ്പെഷ്യലായിട്ട് പൂജ നടത്തുന്നവര് ഒരുപാട് രൂപ ചെലവാക്കി അവനവൻ്റെ വീടുകളിൽ തന്നെ പൂജ ചെയ്യുന്നവര് മറ്റുള്ളവരുടെ കണ്ണേറു തട്ടിയിട്ടാണ് അസുഖം ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കണ്ണേറു മാറ്റാനായിട്ട് രൂപങ്ങളെ വീടിൻ്റെ മുന്നില് പേടിപ്പെടുത്തുന്ന രൂപങ്ങളൊക്കെ വീടിൻ്റെ മുന്നില് കെട്ടിത്തൂക്കി ഇടുന്നവര് ടെക്കെ എണ്ണം ഈ ഈ പരിഷ്കാരം പിടിച്ച ഈ കാലഘട്ടത്തിലും കൂടിക്കൂടി വരികയാണ് ഒരു കണക്കിന് ഇത് തെറ്റാണ് നമ്മൾ അധ്വാനിക്കുന്ന കാശ് മുഴുവൻ ഒ ഒ ഒരു അവശ്വസനീയമായ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളുടെ പേരില് നമ്മള് വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ നമ്മളൊരു ശത്രുക്കളായിട്ട് കരുതുകയും അവർ നമുക്ക് ദോഷം ചെയ്ത് എന്ന് വിശ്വസിച്ച് അവർക്കെതിരെ ഒക്കെ ഉള്ള മന്ത്ര തന്ത്രാദികള് നടത്തുന്നത് തന്നെ തെറ്റാണ് അവനവൻ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും സൽപ്രവർത്തികള് ചെയ്താൽ നല്ലത് സംഭവിക്കും ആർക്കും നമ്മൾക്കെതിരായിട്ട് ഒരു ദോഷവും ഇന്നത്തെ കാലത്ത് ആർക്കും ചെയ്യാനായിട്ട് പറ്റില്ല കൊള്ള കൊല അതൊക്കെ വേറെ അല്ലാതെ മന്ത്ര തന്ത്രാദികളും അന്ധവിശ്വാസങ്ങളും ഒന്നും ഇന്നത്തെ കാലത്ത് നടപ്പിലാക്കാൻ കഴിയില്ല അത് ശാസ്ത്രീയമായിട്ട് അതിന് ഒരു സത്യവും ഇല്ല എന്നാണ് അറിവ്